ട്രെക്കിങ്ങിനിടെ ഞാൻ വന്യജീവികളെ കണ്ടിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഇപ്പം മലകളക്കെ കയറാൻ പോകുന്ന സമയങ്ങളിൽ കാട് അങ്ങനത്തെ ഏരിയകളൊക്കെയായിരിക്കും കൂടുതലായിട്ടും നമ്മൾ ട്രെക്കിങ്ങിനായിട്ട്ര തിരഞ്ഞെടുക്കുക അപ്പോൾ വന്യജീവികൾ ഇഷ്ട്ടം പോലെയുണ്ട് നമ്മുടെ ആന ആന ആനയൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടാകും അപ്പം റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നടന്ന് പോകുന്ന വഴിക്കായിരിക്കും ആനയൊക്കെ ഉണ്ടാവുക അപ്പം ആന ഉപദ്രവിച്ചിട്ടുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫോട്ടോ എടുക്കാനോ അതിനെ എന്തെങ്കിലും ഉപദ്രവിക്കാനൊക്കെ നിൽക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആനയിൽനിന്നുള്ള ഉപദ്രവോം കാര്യങ്ങളുവൊക്കെ കിട്ടുവുള്ളു അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊ കാര്യങ്ങളൊ ഒന്നൂമില്ല ആനക്ക് ആന ആനയാണെങ്കിൽ തന്നെ ഇത് ചില സമയങ്ങളിൽ നമുക്ക് വഴിമാറി തരുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു നമ്മൾ അതിനെ എന്തെങ്കിലുവൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളു പിന്നെ വേറെ ജീവികൾന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാ മാന്ണ്ടാവും പിന്നെ കാട്ട് പോത്ത് കാട്ട് പോത്തേക്കെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഉപദ്രവകാരികളായിട്ടുള്ള കാട്ടു പോത്തുകളായിരിക്കും നമ്മൾ അവരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മളതിനെ ഉപദ്രവിക്കാനോ അതിനെ ശല്യപ്പെടുത്താനോ നിന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും തിരിച്ച് ഉപദ്രവിക്കും അപ്പം നമ്മൾ മാന്യമായ രീതിയിൽ ആ ഉപദ്രവിക്കാണ്ട് പോയിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നൂമില്ല